എൻ്റെ ഫസ്റ്റ് പ്രൊഡക്ട് എന്ന് പറയുന്ന ഫാൻ ആണ് ടേബിൾ ഫാനാണ് എൻ്റെ ടേബിൾ ഫാനിൻ്റെ എക്സ്പീരിയൻസ് പോസിറ്റീവ് എക്സ്പീരിയൻസ് ചോദിക്കാൻ തുടങ്ങിയാൽ എന്താപറയുക നല്ലൊരു ഫാനാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക എന്താ പറയുക നല്ല സ്പീഡ് ഉണ്ട് നല്ല കാറ്റ് കിട്ടുന്നുണ്ട് നല്ലൊരു ഫാനാണ് ഇപ്പം ചൂട് കാലത്തൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഐറ്റമാണ് എന്താ ടേബിൾ ഫാനെന്ന് പറയുന്നത് അതേസമയം എന്താ പറയുക നമുക്ക് അത്യാവശ്യം നല്ല കാറ്റും നല്ല തണുപ്പും നല്ല ഹൈ സ്പീഡിൽ ഓടുന്ന നല്ല ഫാനാണ് എന്താ പറയുക അത്ര കംപ്ലൈൻറ് ഒന്നും ഇല്ല നല്ല അടിപൊളി ഫാനാണ് കംപ്ലൈന്റ് ഒന്നും ഇല്ലാത്ത നല്ല അടിപൊളി ഫാനാണ് ടേബിൾ ഫാൻ എന്ന് പറയുന്നേ പിന്നെ എന്ന് വെച്ചിട്ടുണെങ്കിൽ എൻ്റെ പ്രൊഡക്ട് എനിക്ക് ഭയങ്കരയിട്ട് ഇഷ്ടപ്പെട്ടു എന്താ കുറെ ആയിട്ട് അതിന് പ്രത്യേകിച്ച് ഒന്നും പറ്റിട്ടൊന്നുല്ല നല്ല ഇതായിട്ട് തന്നെ ഇരിപ്പുണ്ട് പിന്നെ ഇതിൻ്റെ സ്പീഡ് എന്ന് വെച്ചാല് ഭയങ്കര ഹൈ ആണ് അതുപോലെതന്നെ എന്താ പറയാ നല്ല ആടികളിക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്ന സൈസ് ഫാനാണ് ടേബിൾ ഫാനാണ് അതേപോലെ എല്ലാവർക്കും നല്ല എനിക്കും ഭയങ്കര ഇഷ്ടമായി ആ പ്രൊഡക്ട് പിന്നെ അതേപോലെ നല്ല അത് ഉണ്ടാക്കിയിരിക്കുന്ന പ്രൊസീജർ കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി ആണ് അതുകൊണ്ട് തന്നെ ഭയങ്കര ഇഷ്ടമായി